ഹലോ ആ അതുതന്നെ ആ ആ എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ആ

നമ്മൾ എണ്ണത്തിന് അല്ല വിൽക്കുന്നത് ഇത് കിലോ കണക്കായിട്ടാണ് വിൽക്കുന്നത് ഒരു കിലോന് എൺപത് രൂപ വച്ചിട്ടാണ് കൊടുക്കുന്നത് ആ ആ ഇങ്ങോട്ട് വന്നിട്ട് ആണെങ്കിൽ എണ്ണത്തിന് കണക്കായിട്ട് അയിമ്പത് എണ്ണം എടുത്തിട്ട് തൂക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരാം എങ്ങനെയാണ് നിങ്ങളെ ഏലുപോലെ ചെയ്യാം ആ രണ്ടു ലിറ്ററാണോ അപ്പോൾ നൂറു രൂപ വച്ചിട്ടാണ് ലിറ്ററിന് കൊടുക്കുന്നത് ആ അങ്ങനെ തന്നാൽമതി എല്ലാ വീട്ടിലേക്ക് എത്തിച്ച് തരണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വച്ചാൽ നിങ്ങളെ താല്പര്യം പോലെ ആ എന്നാൽ അങ്ങനെ ചെയ്യാം കറക്റ്റ് ഇത് സ്ഥലം കൂത്തുപറമ്പിൽ നിന്ന് കണ്ണൂർ റോഡിലേക്ക് വരുമ്പോൾ കുറച്ച് സന്തോഷ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് അതിൻ്റെ വലതു വശത്ത് ആയിട്ടാണ് വരുന്നത്

ആ ഉണ്ടാവും ആ ആ ഓക്കേ ആ വിളിച്ചോ വിളിച്ചോ ആ ഓക്കേ